ഇന്ത്യയിലെ ഗതാഗതം കൂടുതലും ആൾക്കാർ റോഡ്ടേ റോഡ് ട്രാഫിക്കാണ് ഉപയോഗിക്കുന്നത് കാറ് ബസ്സ് പൊതുവാ പൊതുവ് ജനങ്ങൾ കൂടുതലും ബസ്സ് ട്രാൻസ്പോട്ട് പിന്നെ കെ എസ് ആർ ടി സി ബസ്സാണ് ഉപയോഗിക്കുന്നത് അതിൻറ്റൊരു പ്രശ്നമെന്താണ് വെച്ച് കഴിഞ്ഞാൽ പല സിറ്റികളിലുമെല്ലാം ബ്ലോക്കാണ് മുഴുവൻ ബ്ലോക്കാണ് നമ്മുടെ സമയത്തും വളരെ നഷ്ടമാണ് പണ്ട് കാലങ്ങളിൽ വണ്ടികൾ കുറവായിരുന്നു ഇപ്പോഴെല്ലാവർക്കും ജോലി സാമ്പത്തിക ഭദ്രതയുള്ളത് കൊണ്ട് പണ്ട് എന്നാൽ ഒരുവീട്ടിൽ ഒരാൾക്ക് എന്ന രീതിയിൽ വണ്ടികൾ ഉള്ളത് കൊണ്ട് നമുക്ക് വണ്ടി ബാഹുല്യം ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര സമയം നഷ്ടം ഉണ്ടാവാറുണ്ട് കൂടുതലാൾക്കാരും പൊതുവായിട്ട് ബസ്സ് പൊതുവായിട്ടുള്ള പിന്നെ ഗതാഗത സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണ് നല്ല ജനസംഖ്യയുള്ള സ്ഥലമാണ് ഏറ്റോം വലിയ സർവീസ് ഗതാഗതത്തിന് ഇന്ത്യ നൽകുന്ന റെയിൽ വേസാണ് ട്രെയിനാണ് ട്രെയിൻ പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ട്രെയിൻ ഗതാഗതത്തമാണ് കൂടുതലാൾക്കാരും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് അത് ഏറ്റോം നല്ല ഒരു സംവിധാനമാണ് എങ്കിൽ പോലും ദുരന്തങ്ങളും ഇതിനകത്ത് ഉണ്ടാവാറുണ്ട് വളരെ അസാധാരണമായി വളരെ സംഭവിക്കാൻ ഒരു സാധ്യത ഇല്ലാത്തതായ കാര്യങ്ങളാണെങ്കിലും നിയന്ത്രണങ്ങൾ ഒത്തിരി സുരക്ഷാ മേഖലകളൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ പാളിച്ചകളും പറ്റി അതിൽ ജീവനൊക്കെ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതിൽ കൂടുതലാൾക്കാരും ഉപയോഗിക്കുന്നത് ട്രെയിൻ ഗതാഗതം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഓരോത്തർക്കും വണ്ടി എന്ന ഒരു അവസ്ഥയിലിപ്പോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അന്തരീക്ഷം മലിനീകരണവും പുകയുടെ പ്രശ്നവും എന്നാ ബ്ലോക്ക് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകാറുണ്ട് ഉണ്ടെങ്കിലും വെല്ലുവിളികൾ ഉണ്ട് സാധ്യതകൾ നമുക്ക് സമയം അവനവൻ്റെ ആവശ്യത്തിന് എപ്പം വേണമെങ്കിലും വണ്ടിയെടുത്ത് പോകാവുന്നൊള്ളോരു സാധ്യതകളുണ്ട് ഉണ്ട് എങ്കിലും വണ്ടീടെയൊക്കെ ബാഹുല്യം കാരണം നമുക്ക് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഒരു പ്രശ്നമാണ്